പ്രകാശ മലിനീകരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം ഇപ്പോൾ നമുക്കറിയാം മുംബൈ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആകാശങ്ങളൊന്നും നേരെ കാണാൻ പോലും പറ്റുന്നില്ല കാര്യം ഫോഗ്ഗും മറ്റു പുകയും അങ്ങനങ്ങനേയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ട് ആകെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ഈ നമുക്കിപ്പോൾ തെളിഞ്ഞൊരു ആകാശം കാണണം തെളിഞ്ഞ നക്ഷത്രങ്ങള് കാണണമെങ്കിൽ വളരെ ശുദ്ധമായ വായു ഉള്ള ശുദ്ധമായ രീതിയിലുള്ള നമ്മള് ഒരു മരടെ സൈഡിൽ താഴ്വാരത്തിലോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയുള്ളതായതും അധികം മാലിന്യം നിക്ഷേപിക്കാത്ത അതിന് അധികം പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലങ്ങളില് പോയാൽ മാത്രമെ ഇപ്പം നക്ഷത്രങ്ങളേയും ആകാശത്തേയൊക്കെ വളരെ വൃത്തിയായി കാണാനും നിരീക്ഷിക്കാനും എല്ലാം പറ്റാത്തൊള്ളൂ അതിനിന്നത്തെ കലാത്തങ്ങനെയായി സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയാണ് അതെല്ലാം നമ്മുടെ ജീവിതത്തെ മോശമായി ബാധിക്കുന്നുണ്ട് എല്ലാവർക്കും മോശമായ രീതിയില് ബാധിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കിപ്പോൾ കാണുന്നത് തന്നെ നമുക്കൊരു പ്ലൈനായിട്ട് ഓപ്പൺ സ്പേസിലൊക്കെ പോകുന്നെങ്കിൽ മാത്രമെ അധികം മലിനീകരണം ഒന്നും ഇല്യാത്ത ഓപ്പൺ സ്പേസിൽ പോയാൽ മാത്രമെ നമുക്ക് ഇപ്പോൾ നക്ഷത്രങ്ങളേയും ആ പ്രകാശവും ആകാശവും ഒക്കെ നേരെ കാണാൻ പറ്റുള്ളൂ നിരീക്ഷിക്കാനായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളില് പോകണം അല്ലെങ്കിൽ ടെലിസ്കോപ്പ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വേണം നേരെ നമുക്ക് നിരീക്ഷിക്കാൻ പക്ഷെ പണ്ടുള്ളവരെന്നും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല